ഞങ്ങളുടെ മതം എങ്ങനെയാണ് ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നെന്ന് ചോദിച്ചാല് എന്നാ നല്ല നല്ല ധ്യാനങ്ങള് വയ്ക്കുക എന്നിട്ട് അതിനെക്കുറിച്ച് സമൂഹത്തിലിങ്ങനെ അറീയിപ്പ് കൊടുക്കുമ്പോഴത്തേക്കിന് നല്ല ആത്മീയ ഗുരുക്കളാണ് ധ്യാനം നടത്തുന്നതെന്ന് അറീയിപ്പ് കൊടുക്കണം എന്നാലപ്പോള് അത് കേട്ടു കഴിയുമ്പഴത്തേനന്നെ ആൾക്കാര് അങ്ങനെവന്ന് പങ്കെടുക്കാനുള്ള ഒരു മനോഭാവം കാണിക്കും അവര് അങ്ങനെ ധാരാളം ആൾക്കാര് വന്നെടുക്കുന്ന ഒരു ഇതാണ് നല്ലയൊരു ധ്യാനം വച്ചാല് അത് ആൾക്കാര് അറിയുന്നതിനനുസരിച്ച് വന്നുകൊണ്ട് വന്നുകൂടുകയും എടുക്കെയൊക്കെ ചെയ്യും പിന്നെ ഒരു എന്നെങ്കിലും ഒരു പ്രത്യേക അത് ഉത്സവം ഉദ്ദേശമെന്നു പറഞ്ഞാല് നമ്മടെ പെരുന്നാള് പെരുന്നാള് വന്നാല് എന്നാ എല്ലാവരും ആഘോഷപൂർവ്വമായിട്ട് എന്നാ പെരുന്നാളിൽ സംബന്ധിക്കും പിന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ക്രൈസ്തർ വിശുദ്ധ ബലിയർപ്പിച്ച് ബലിയിൽ പങ്കെടുക്കുന്നു പിന്നെ കൊടിയേറ്റിന് എല്ലാവരും വന്ന് വരുന്നു അത് എന്നാ സന്തോഷത്തോടെ വളരെ ബന്ധുമിത്രാദികളെയും കൂട്ടുകാരെയെല്ലാം അന്ന് ഒരുമിച്ച് കാണാൻപറ്റിയൊരവസരാണ് പെരുന്നാള് പെരുന്നാൾ സമയത്ത് നമ്മള്ക്ക് നല്ലൊരു പ്രദക്ഷിണം അത് നമ്മുടെ പള്ളിയുടെ അതിർത്തിയിലുള്ള ഒരു കുരിശേൽനിന്നാരംഭിച്ച് എന്നാ വൈകീട്ട് വർണ്ണശബളമായ നല്ല ചെണ്ടമേളത്തോടും വാദ്യവൃന്ദങ്ങളോടും കൂടി ഇങ്ങനെ ഒത്തുചേർന്ന് എല്ലാവരുംകൂടെ എന്നാ റോഡില് മെഴുകുതിരിയൊക്കെ എല്ലാവരുടെയും കൈയ്യിൽ കളർഫുള്ളായിട്ടുള്ള മെഴുകുതിരിയൊക്കെ പിടിച്ച് മുമ്പത്ത് കൊടയൊക്കെപ്പിടിച്ച് ഇങ്ങനെ വരിവരിയായിട്ട് പള്ളിയിലോട്ട് അത് കാണാൻതന്നെ നല്ല ഭംഗിയാണ് എന്നാ വണ്ടികള് നമ്മളുടെ വിശുദ്ധന്മാരുടെ രൂപങ്ങളുമൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല ലൈറ്റുകളും ഒക്കെ ഇത് ഫിറ്റെയ്ത് അത് റോഡിലൂടെ മന്ദം മന്ദം നീങ്ങുന്നത് തന്നെ കാണുമ്പോള് എന്നാ നാനാജാതിമതസ്ഥര് നോക്കിനില്ക്കും അതുപോലെ നല്ല ഇതാണ് അത് പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു അതാണ് നമ്മടെ പെരുന്നാള് തന്നെ ആ പെരുന്നാള് നമ്മുടെ കൊച്ചു പ്രായംതൊട്ടുള്ള ഈ പ്രായംവരെയുള്ള അത് ഓർക്കുമ്പോള്ത്തന്നെ നമ്മള്ക്ക് എന്നാ വീണ്ടും വീണ്ടും അത് നമ്മളി സന്തോഷമാണ് അതൊരു എൻ്റെ എൻ്റെ ജീവിതത്തിലേറ്റവും ഓർമ്മയിൽ നിൽക്കുന്നൊരു ഒരിതാണേ ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാള്